പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ആധുനിക ലോകത്താണ് നാമിന്നു ജീവിക്കുന്നത് അമ്പിളി മാമനെ ദൂരത്തു നിന്നു കണ്ട ആ ഒരു സ്ഥിതിയിൽ നിന്നും കയ്യെത്തി പിടിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നു കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ വളർന്നു വന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്നത് കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്ന പൗരന്മാരെ വലിയവരെ വലയിലാക്കാൻ കെൽപ്പുള്ള വലിയ വലകൾ ഇന്ന് അവർ സമൂഹത്തിൽ വിതച്ചിരിക്കുകയാണ് ലഹരിയെക്കുറിച്ചുള്ള അവബോധത്തിന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും നിയമ വ്യവസ്ഥയിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു പൗരന്മാരെ സംരക്ഷിക്കുക എന്നത് രാജ്യത്തിലെ അധികാരികളുടെ ഏറ്റവും പ്രധാന വിഷയം ആയിരിക്കണം സമാധാനം നിലനിർത്തുക എന്ന് പറയുന്നത് കുടുംബത്തിനും സമൂഹത്തിനും അതുവഴി രാജ്യത്തിനും ഏറ്റവും ആവശ്യമായ കാര്യം തന്നെയാണ് അനീതിക്കെതിരെ എത്രയും കടുത്ത നിലപാടെടുക്കാൻ ഓരോ അധികാരിയും ശ്രദ്ധിക്കേണ്ടതാണ് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഉള്ള ഒരു നോട്ടവും ഇതിനെതിരെ പാടില്ല അക്രമം കാണിക്കുന്നവരെയും അനീതി കാണിക്കുന്നവരെയും പണത്തിൻ്റെ മറവിൽ നിന്നു കൊണ്ട് സംരക്ഷിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടു വരുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവർ പലരും ആപത്തിലേക്കും അഗാധ ഗർത്തത്തിലേക്കും ദുഃഖത്തിലേക്കും മനുഷ്യനെ തള്ളി വിടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നാമെല്ലാവരും ശബ്ദം ഉയർത്തേണ്ടി ഇരിക്കുന്നു പേനയെടുക്കേണ്ട കൈകൾ കത്തിയെടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഓരോ ദിവസവും കാണുന്നത് മാതാപിതാക്കളെ നിർദാക്ഷിണ്യം വധിക്കുന്ന മക്കളെയും നൊന്തു പെറ്റ മക്കളെ ഒരു കരുണയുമില്ലാതെ എറിഞ്ഞു കൊലപ്പെടുത്തുന്ന മാതാപിതാക്കളെയും സഹോദരീ സഹോദര ബന്ധം മോശമായി കാണുന്ന യുവതലമുറയെയും ആണ് നാമിന്ന് കാണുന്നത് മുതിർന്നവരോട് പ്രായാധിക്യം ചെന്നവരോടും രോഗികളോടും അഗതികളോടും യാതൊരു സ്നേഹവും പരിഗണയുമില്ലാത്ത ഒരു ലോകത്താണ് നാമിന്ന് ജീവിക്കേണ്ടത് സന്തോഷവും സമാധാനവും കുടുംബത്തിൽ ആവശ്യമാണ് എന്നാൽ ലഹരിക്കടിമപ്പെട്ട യുവതലമുറയും മാതാപിതാക്കളും ഇന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്നു ഇതിനെല്ലാം ഒരു കടിഞ്ഞാണിടേണ്ടത് ആവശ്യമാണ് ഏറ്റവും നല്ലത് എന്നു പറയുന്നത് ഒരു നല്ല അവബോധമാണ് ഞാൻ നിമിത്തം ഞാൻ തന്നെ നശിക്കും എൻ്റെ കുടുംബം നശിക്കും എൻ്റെ സമൂഹം നശിക്കും അതുവഴി ലോകവും നശിക്കും എന്നുള്ള അവബോധം നമുക്കുണ്ടായിരിക്കണം